ചെടി വളർത്താൻ ഏറ്റവും നല്ല മണ്ണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മണ്ണ് ഈ ഇപ്പം ഇലയൊക്കെ വീണ് ചീഞ്ഞ മണ്ണാണെങ്കിൽ അതിന് വളക്കൂറുണ്ട് അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടിയോ ചാണകപ്പൊടി തന്നെയാണ് നല്ലത് പിന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടതാണെങ്കിൽ നല്ലതാണ് ചാണകപ്പൊടി ഇട്ടിട്ട് എന്താക്കുക നടുക പിന്നെ ചാണക വെള്ളം ചാണകപ്പൊടി തന്നെ ഇടുന്നതായിരിക്കും വളം നല്ലത്